ആ ഹലോ ടീച്ചറേ

ആ ആ ആ എന്താണ് ടീച്ചറെ എന്താ പ്രശ്നം ആ ആ

ആ ഇവിടന്ന് വീട്ടീന്നൊക്കെ നല്ലപോലെ പഠിക്കുന്നൊക്കെ കാണാം കുറെ സമയമിരുന്ന് വായിക്കുന്നൊക്കെയുണ്ട് പക്ഷേ പരീക്ഷയ്ക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുന്നേന്ന് എനിക്കറിയില്ല ഉണ്ടുണ്ട് പരീക്ഷേടെ സമയത്തൊക്കെ നല്ലപോലൊയിരുന്നു വായ്ക്കുന്നൊക്കെ കാണാറുണ്ട് നമ്മൾ ശ്ര ഏ ശ്രദ്ധിക്കുന്നുണ്ട് കുറെ സമയാമിരുന്നു വായ്ക്കുന്നൊക്കെ ഞാൻ കാണാറുണ്ട് പഷേയിനീ വയ്ക്കാന്നൊന്നും എനിക്കറിഞ്ഞൂടാ പരീക്ഷേടെ സമയത്തൊക്കെ കുറെ സമയം പുസ്തകോം പിടിച്ച് റൂമിലിരിക്കാറുണ്ട് മൊബൈലിലാണ് പഠിക്കാനുള്ള അതേ പഠിക്കാനുള്ള നോട്ടെല്ലാം ഫോണിലാണെന്നാണ് പറയുന്നത് ആ ആ ഫോണ് പക്ഷേ വാങ്ങി വെയ്ക്കാൻ അവൻ സമ്മതിക്കാറില്ല ഫോണ് എല്ലാ സമയത്തും കൈലുണ്ടാവാറുണ്ട് ഇനിയിപ്പം നമ്മൾ ഞാനും ഇങ്ങനെ പറയാറുണ്ട് പരീക്ഷേൻ്റെ തലേന്നൊക്കെ ഫോണും പിടിച്ചിരിക്കുമ്പം പുസ്തകം ഉണ്ടായിരിക്കും മുന്നിൽ മറ്റൊരു കൈയിൽ ഫോണും ഉണ്ടായിരിക്കും ഫോണ് മാറ്റി വെക്കാൻ പറഞ്ഞാൽ എൻ്റെടുത്ത് പറയും എന്താ പഠിക്കാനുള്ളതൊക്കെ ഫോണിലാണമ്മേ എന്താ ചെയ്യാന്ന് ചോദിക്കും പിന്നെ നമുക്കൊന്നും അറിയില്ലല്ലോ നമുക്കൊന്നും

ആ ആ ആ ആ ആ ആ വേറെന്തെകിലും പ്രശ്നമുണ്ടോ ടീച്ചറേ സ്കൂളിൽ ആ ആ ആ ആ ആ ആ ആ ആ അത് ഞാൻ നോക്കിക്കൊള്ളാം ആയിക്കോട്ടെ ടീച്ചറെ ആ ശരി